ഹലോ ഉം ആ ഞാൻ വിളിച്ചിരുന്നതായിരുന്നേ എനിക്കൊരു പുതിയ ലേറ്റസ്റ്റ് മോഡൽ ആൻഡ്രോയ്ഡിന്റെ ഒരു ഫോൺ വേണമായിരുന്നു അപ്പോൾ അതിന്റെ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് ഒന്ന് അറിയാനായിട്ടായിരുന്നു വിളിച്ചത് ആ സ്ഥലം ഇവിടെ ശക്തികുളങ്ങര നീണ്ടകരയ്ക്കട്ത്ത് നീണ്ടകരയ്ക്ക് ആ അപ്പം എനിക്ക് കുറച്ചുകൂടെ അടുത്ത് വെള്ളാട്ടമ്പലം ആണ് ആ വെള്ളാട്ടമ്പലത്തിൽ നിന്ന് അപ്പം പല ഫോണിന്റെ ഇതൊക്കെ പറയും പലരും പല റാം മൊബൈൽ ഫോണുകളെക്കുറിച്ച് പറയുന്നു അപ്പം ഏറ്റവും നല്ല ക്ലാരിറ്റിയും ക്യാമറ ക്ലാരിറ്റി ഒക്കെ ഉള്ള ഐറ്റം ഒക്കെ ഏതായിരുന്നു സാർ അല്ല ഫ്രഷ് ഇട്ട് നോ ഫ്രഷ് മതി നമുക്ക് ഫിനാൻസും കൂടെ ഇടാൻ പറ്റുമെങ്കിൽ അതും കൂടെ അതിന്റെ ഉള്ളതും കൂടെ ചേർത്ത് ഒരെണ്ണം നോക്കാം പതിനെട്ടിന് മുകളിൽ ആ ഒരു ഇരുപത്തൊന്ന് വരെയൊക്കെ വരുന്ന മൊബൈലുകൾ നോക്കിയാൽ മതി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് റേഞ്ചിനകത്ത് നിൽക്കുന്ന മതി മതി ആ ആ വിവോയുടെ ഉണ്ടെങ്കിൽ വിവോയ്ക്ക് ക്യാമറ ക്ലാരിറ്റി കൂടുതൽ ആണെന്ന് എല്ലാവരും പറയുന്നു അപ്പോൾ അതുകൊണ്ട് വിവോ ഉണ്ടാവുമോ വിവോ ഉണ്ട് ആ വിവോയുടെ ലേറ്റസ്റ്റ് മോഡൽ ആ വരുമ്പം നോക്കി സെലക്റ്റ് ചെയ്യാം അതല്ല വിവോയുടെ ഈ ഇരുപത്തിരണ്ടായിരത്തിന് അകത്ത് വരുന്നത് ഫിനാൻസ്

ആ വി ഫിനാൻസ് ഇടണമെങ്കിലേ ഫിനാൻസ് ഇടണമെങ്കിൽ എന്തൊക്കെ കൊണ്ടുവരണം നമ്മൾ ആ ബജാജിന്റെ കാർഡ് ഇല്ല എനിക്ക് പുതിയതായിട്ടൊരു ബജാജ് എടുക്ക് എടുക്കണമായിരുന്നു എടുത്തിട്ടില്ല ആ അന്നേരം ഡൗൺ പേമെൻറ് ഒക്കെ അടയ്ക്കാൻ പറ്റുമോ സീറോ ഡൗൺ പേമെൻറ് ചെയ്യാൻ പറ്റും അല്ലെ ആ ആ അപ്പം അങ്ങനെ അങ്ങനെ ഒരെണ്ണം നോക്കാം അപ്പം നാളെ എത്ര മണിക്ക് വരണം

അരവിന്ദ് ആ ശരി അപ്പം നാളെ ഒരു വരാം വെള്ളാട്ടമ്പലത്തിൽ വരാം സിറ്റി മൊബൈൽസ് ഓക്കെ ഓക്കെ